ആ ഞാൻ കുറച്ച് മുമ്പ് സ്വിഗ്ഗീന്നൊരു ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു ഒരു അഞ്ച് ചപ്പാത്തി രണ്ട് ബർഗറ് നാല് പൊറോട്ട ചിക്കൻ കുറുമ രണ്ടെണ്ണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അവരഞ്ച് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് അവരൊരു പത്ത് പത്ത് പേരോളം വരുമെന്ന് പറഞ്ഞു അവർക്ക് വേണ്ടി ഓർഡർ ചെയ്തതായിരുന്നു പക്ഷെ എങ്കിൽ അവരൊരു കുറച്ച് മുമ്പ് വിളിച്ച് പറഞ്ഞു അവർ വരില്ലായെന്ന് പക്ഷെ എനിക്ക് ഫുഡ് നല്ലതായതുകൊണ്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് കാരണം നല്ല ഫുഡ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം നല്ല ഗുഡ് പ്രോഡക്റ്റ് ഗുഡ് ഇതിൽ എടുക്കുകയുളളൂ അപ്പം അതിന് വേണ്ടി നമ്മൾ ഏറ്റവും നല്ലത് തന്നെയാണ് ഓർഡറ് ചെയ്തത് ഫുഡും നല്ലതായതുകൊണ്ടാണ് ഓർഡർ ചെയ്തത് പക്ഷെ എങ്കിൽ അസ് ഈ സാഹചര്യത്തിൽ അവർക്ക് വരാൻ പറ്റില്ലായെന്ന് ഒരു മറ്റും അവർ വിളിച്ച് പറഞ്ഞു അപ്പം അതൊന്ന് കാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് കാരണം റീഫണ്ടബിൾ ആണോയെന്നറിയില്ല എന്താണെങ്കിലും അതൊന്ന് കാൻസൽ ചെയ്യണം കാരണം അവർ വരില്ല വെറുതെ ഫുഡ് വേസ്റ്റാവും അല്ല ഫുഡ് വേസ്റ്റാവുന്ന മാത്രമല്ല അത്രയും ഫുഡ് എങ്ങനെയാ വെറുതെ വന്നാലും വേസ്റ്റാവുള്ളൂ അതുകൊണ്ട് ഒന്ന് കാൻസൽ ചെയ്താൽ കൊള്ളാമായിരുന്നു കാരണം അത് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് കാരണം അവർ വരില്ലായെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പെട്ടെന്ന് ഇപ്പോൾ അത്രയും ഫുഡ് എന്ത് ചെയ്യും അപ്പം ദയവ് ചെയ്തൊന്ന് കാൻസൽ ചെയ്യണം